സാധാരണ ചാർട്ട് പേപ്പറില് വരക്കാറുണ്ട് അത് ഓരോ അല്ലെങ്കിലോരോ ചിത്രത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മള് ഏതാണ് വരയ്ക്കണ്ടത് എന്നുള്ള തീരുമാനിക്കുന്നത് ഇപ്പം ചാർട്ട് പേപ്പറാണ് എന്ന് ഉണ്ടെങ്കില് ഇപ്പോൾ ഞാൻ ഈ ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെയാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനാ മാക്സിമം ചാർട്ട് പേപ്പറാണ് ചൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ചാർട്ട് പേപ്പറാകുമ്പോൾ നമുക്കെന്താണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കളറിനനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് വരക്കാം അപ്പോൾ നമുക്ക് പെൻസിൽ ഡ്രോയിങ്ങൊക്കെ ചെയ്യുമ്പം ചാർട്ട് പേപ്പറില് വരക്കുന്നതായിരിക്കും നല്ലത് അത് കുറച്ചും കൂടെ വൃത്തിക്കൊക്കെ വരും നമുക്ക് അതാണ് നല്ലതെന്ന് തോന്നും ക്യാൻവാസില് വരക്കാറുണ്ട് ക്യാൻവാസിനകത്ത് നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് തന്നെ ഇപ്പോൾ ഷോക്കേസിൽ വെക്കണ്ട ഐറ്റംസാണ് അങ്ങനെ എന്തെങ്കിലുവൊക്കെ കണ്ടോണ്ടെ ഞാൻ നല്ല ക്യാൻവാസൊക്കെ എടുത്ത് മറ്റെ വൃത്തിയാക്കി നീറ്റാക്കി വരയ്ക്കാറുണ്ട് ഞാനപ്പോൾ പുറത്ത് ഇപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്ന് ഉണ്ടെങ്കില് ഇതി ക്യാൻവാസൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് അതുപോലെത്തന്നെ ഗ്ലാസ് പെയിൻറ്റിങ് ഞാൻ ചെയ്യാറുണ്ട് നമ്മള് എന്താണ് ഗ്ലാസ് പെയിൻറ്റിങിൽ നമ്മള് പല പല നിറത്തിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ചിത്രം വരച്ച് കൊടുക്കാറുള്ളു അപ്പം നമ്മള് ഏത് ചിത്രമാണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ് ഞാൻ മൂന്നിലും ആദ്യം മൂന്നിലും ഞാന് എന്താ ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതല് എളുപ്പം അല്ലെങ്കിൽ കൊറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാനാണ് അതാകുമ്പം നമുക്ക് റിസ്ക്കില്ല നല്ല രസ്സമാണ് അതില് നമുക്ക് ചെയ്തോണ്ടിരിക്കാൻന്ന് പറയാൻ നമുക്ക് മടുക്കത്തില്ല അപ്പം ഞാന് അതാണ് കൂടുതലായിട്ടും നോക്കുക പിന്നെ ക്യാൻവാസ് ചെയ്യുമ്പോൾ പറയുമ്പോൾ നമ്മള് നമുക്ക് എവിടെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് വീണ്ടും തിരുത്തി മൊത്തം ആ പേപ്പറുതന്നെ നമുക്ക് നാശമായി പോവാറുണ്ട് അപ്പോൾ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ ഞാനധികവും സൂക്ഷിക്കാറുണ്ട് നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടെ ചെയ്യുകയുള്ളു കാരണം എന്തേലും പ്രശ്നം വന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാനുള്ള ബുദ്ധിമുട്ട് പിന്നെ കുറച്ച് ലാർജാണ് ഞാനത് കുറച്ച് നോക്കും പിന്നെ ഈ കളർ പെയിൻറ്റ് വാട്ടർ കളറൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മള് ചാർട്ട് പേപ്പറിൽ തന്നെയാണ് ചെയ്യുക അപ്പോൾ ചാർട്ട് പേപ്പറില് വാട്ടർ പെയിൻറ്റ് കൊടുക്കുമ്പം അത് പേപ്പറ് നശിച്ച് പോവാനുള്ള ചാൻസൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ഒരുപാട് വെ ഒരുപാട് വെള്ളം ചേർക്കാത്ത രീതിയില് പെയിൻറ്റൊക്കെ ചെയ്യാറുണ്ട് നമുക്ക് ചാർട്ട് പേപ്പറ് നോക്കാം